ബൈക്കിങ്ങ് എങ്ങനെ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ നമുക്കതിൻ്റെ സ്വാധീനം ചെലുത്തുമെന്നു നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണീറ്റിസെന്നു പറയുമ്പം നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ നിന്നു കൊണ്ട് നമുക്ക് ബൈക്കിങ്ങിലേക്ക് ഇറങ്ങാവുന്നതാണ് ബൈക്കിങ്ങെന്നു പറയുന്നത് നമ്മുടെ ഒരു ഹോബിയായിട്ടു തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് നമുക്ക് ഇന്ത്യയുടെ ഭൂപ്രകൃതിയും നമുക്ക് ഭംഗി ആസ്വദിക്കാനും ഇന്ത്യയിൽ പലതരം ഭൂപ്രകൃതികളും ഭംഗികളും ആസ്വദിക്കാനായിട്ട് നമുക്കുണ്ടല്ലോ അതിനു വേണ്ടി ബൈക്കെടുത്ത് റോഡുകളിലൂടെ ഓടിക്കുക ഭംഗികളിലേക്ക് ഒറ്റക്ക് പോകുക സോളോ പോകുക ഇതൊക്കെ നല്ല ഒരു അനുഭവമായിട്ടു തന്നെയാണ് നമുക്ക് പറയാനുള്ളതും ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് പല സംസ്കാരങ്ങലും ഇന്ത്യയിൽ തന്നെ നാനാ ജാതി മത മത വിഭാഗങ്ങളുണ്ട് അതിൽ തന്നെ പലതരം സംസ്കാരങ്ങളുമുണ്ട് പല സ്ഥലങ്ങളുമുണ്ട് ഇന്ത്യയിൽ കാണാനായിട്ട് അപ്പം കാണാനായിട്ടു നമ്മുടെ തന്നെ ഒരു കൊച്ചു സ്ഥലം എന്നത് ഉപരിയായി നമുക്ക് ലോകം കണ്ടു കറങ്ങി നടക്കുക എന്നു പറയുന്നതും ബൈക്ക് ബൈക്കിങ്ങ് ഓടിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രധാനപ്പെട്ടൊരു വിനോദമായിട്ടു തന്നെയാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ ബൈക്കിങ്ങ് സംഘടനകളുണ്ട് പലതരം പലതരം ബൈക്കുകളുടെ പേരിൽ സംഘടനകളുണ്ട് ഹിമാലയൻ ബുള്ളറ്റ് അസോസിയേഷൻസ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൻറ്റകത്ത് തന്നെ വരുന്നുണ്ട് അപ്പം പലതരം പല സ്ഥലങ്ങളിൽ നിന്ന് പല ആൾക്കാരൊന്നിച്ചു കൂടി വന്ന് ഒരു സ്ഥലങ്ങളിൽ മീറ്റ് ചെയ്ത് ഒരു സ്ഥലങ്ങളിൽ സംഘടിച്ചു പലസ്ഥലങ്ങളിലെ ഒരു കാര്യങ്ങൾ എല്ലാവരുമായിട്ട് പങ്കു വെച്ചു പല സ്ഥലങ്ങളിലേക്ക് യാത്ര തിരിച്ച് അവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടു മനസ്സിലാക്കി അനുഭവം അനുഭവിച്ചറിഞ്ഞ് അതിലേക്കു വരുമ്പോൾ ഒരു പ്രത്യേക തരം അനുഭവമായിട്ടു തന്നെ അതു മാറുന്നത് മനുഷ്യ ജീവിതങ്ങളും സമാജങ്ങളും ബൈക്കിങ്ങ് എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നതെന്നു വെച്ചു കഴിഞ്ഞാൽ മനുഷ്യ ജീവിതങ്ങളിൽ ഇപ്പോൾ ഒത്തിരിയേറെ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ വരാറുണ്ട് അപ്പം അതിൻറ്റേതായ രീതിയിൽ നമുക്കതിൽ നിന്നൊരു ഒരു തൽക്കാല ആശ്വാസം താത്കാലിക ആശ്വാസം നമുക്ക് കണ്ടെത്താനായിട്ട് നമുക്കീ ബൈക്കിങ്ങൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഈ മനുഷ്യൻ കുറേ മനുഷ്യരൊന്നിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് ഒരു സൊസൈറ്റി ഒരു ഒരു സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനിടക്കൊത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാം നമുക്കതിൻ്റെ ഒരു മനുഷ്യനുണ്ടാകുന്ന സ്ട്രെസ് കാര്യങ്ങളെല്ലാം നമുക്ക് കളയാനും അതിലേക്കു മാറ്റാനും പുതിയ പുതിയ അനുഭവങ്ങളുണ്ടാക്കാനും ഈ ബൈക്കിങ്ങ് നമുക്ക് സഹായകമാകുന്നൊരു കാര്യം തന്നെയാണ് നമുക്കത് ഓരോരുത്തരുടെ ഹോബിക്കനുസരിച്ചിപ്പം വണ്ടിയോടിക്കാൻ താത്പര്യമുള്ളൊരാൾ സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കുക അല്ലേ വണ്ടിയെന്നു റെൻറ്റ് ചെയ്യുക നമുക്കിതെടുത്ത് ഒരു സ്ഥലം വരെ പോകാമെന്നു കൂട്ടുകാരോടിപ്പം പറയുമ്പോൾ അതിൽ കിട്ടുന്നൊരു സന്തോഷവും സമാധാനവും അത് നമുക്കൊരു പുതിയൊരനുഭവമായി തന്നെ മാറുകയാണ് നമ്മൾ ഒരു പാട് സ്ഥലങ്ങളിൽ പോയിട്ടുള്ളതാണെങ്കിലും പുതിയ പുതിയ സ്ഥലങ്ങളിലേക്കു നമ്മൾ പോകുമ്പോൾ അതിൻറ്റേതായ രീതിയിൽ നമുക്കതിനെ മറക്കാനാകാത്തൊരനുഭവമായിട്ട് വർണ്ണിനാകുകയും ചെയ്യും പിന്നെ നമ്മൾ വരും തലമുറയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടു കുറേ കാര്യങ്ങൾ ആകുകയും ചെയ്യും